ഹലോ സെക്യുരിറ്റി അല്ലേ ആ ആ എന്റെയൊരു ഹാൻഡ് ബാഗ് അവിടെ മറന്നുവെച്ചു പോന്നിരുന്നു ഫുഡ് കഴിക്കാൻ നേരം ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ പോയ സമയത്ത് അവിടെയൊന്നു ചോദിച്ചുനോക്കാമോ റെഡ്ഡ് കളറായിരുന്നു

അതിൻ്റെയകത്താണെൻ്റെ എ ടി എം മാല വള അതുപോലെതന്നെ വണ്ടിയുടെ കാര് അല്ല വണ്ടിയുടെ കീ അതൊക്കെ ഉണ്ടായിരുന്നു അല്ലല്ല ലഞ്ച് കഴിഞ്ഞിട്ടാണ് അപ്പോള് അത്

ആ ഒന്നു നോക്കുമോ ഒന്നിപ്പോള് പോയി നോക്കാൻ പറ്റുമോ സി സി ടീ വിയിലൊക്കെയൊന്ന് നോക്കാൻ പറ്റുമോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോയെന്ന് ആ നമ്മളാ ലഞ്ച് കഴിക്കാൻ പോകുന്ന ആ റൂമില് ഇറങ്ങിവരുന്ന വഴിക്കെങ്ങാനും ഉണ്ടോയെന്നൊന്ന് നോക്കുമോ

വേറെയാണെങ്കില് കുറച്ച് ഫയലൊക്കെയുണ്ടായിരുന്നു ആ അല്ല നമുക്കൊന്ന് നോക്കിയിട്ട് കംപ്ലൈൻറ് ചെയ്യാം

അല്ല നിങ്ങള്ക്കിപ്പോഴൊന്ന് ആ പൈസയൊക്കെയുണ്ടായിരുന്നു ഉം അവിടെ നില്ക്കുന്നവരോടൊന്നു ചോദിക്കാമോ

ആ ഒന്നു ചെയ്യണേ ഹലോ അവിടെ നില്ക്കുന്നയാളോട് ഒന്നു ചോദിക്കാമോ വെയ്റ്ററോടൊക്കെയൊന്ന് അല്ല ഇപ്പോഴൊന്ന് ചോദിക്കാൻ പറ്റുമോ

അവിടെയുള്ളവരെയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാമോ ആ എൻ്റെ വണ്ടിയുടെ കീ അതിന്റെയകത്തായിരുന്നു ഞാൻ ഇവിടെ ഞാൻ പോയില്ലായിരുന്നു ഞാനിവിടെ നില്ക്കുകയാണ് അല്ല ഞാന് അവിടെനിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി പോന്നപ്പോഴാണ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്

വണ്ടി തുറക്കാൻ പറ്റില്ല വണ്ടിയുടെ കീ അതിന്റെയകത്താണ് ഞാനവിടെ ആ ഫുഡോടുകൂടി അങ്ങോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്തത് ആ ശരി എന്നാല് ആ ശരി എന്നാല് ഇല്ലില്ല ശരി എന്നാല്